ആ നമ്മുടെ ഗ്രാമത്തിലെ സ്കൂളുകളിൽ എല്ലാ അവിടേയും എല്ലായിടത്തും തന്നെ മൂത്രപ്പുരയും കുടിവെള്ള കുടിവെള്ളവും പുസ്തകങ്ങളും മേശേയും കസേരകളും ഭക്ഷണവുമൊക്കെയുണ്ട് ഇപ്പം എൻ്റെ കുട്ടി പഠിക്കുന്ന സ്കൂളിലാണെങ്കിലും എല്ലാവിധ സൗകര്യങ്ങളുണ്ട് നല്ല മൂത്രപ്പുരയുണ്ട് ക്ലോസറ്റും നല്ല വൃത്തിയുള്ള മൂത്രപ്പുര ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് മൂത്രപ്പുരയുണ്ട് പിന്നെ ഇപ്പോൾ എൽ കെ ജി യു കെ ജി ചിൽഡ്രൻസിനാണെങ്കിൽ കസേരയും ബെഞ്ചും ഉണ്ട് കസേരയും ടേബിളും ഉണ്ട് മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾക്കാണെങ്കിൽ ടേബിളും ബെഞ്ചും ഉണ്ട് ആ രീതിയിലൊക്കെ ക്ലാസ്സ് റൂമൊക്കെ വളരെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ കുടിവെള്ള സൗകര്യം എന്നു വെച്ചാൽ എല്ലാ കുട്ടികളും കോമൺലി സ്കൂൾ വീട്ടിൽ നിന്ന് തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ടുവരാനായിട്ട് സ്കൂളിൽ നിന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അഥവാ കൊണ്ടുവരാത്ത കുട്ടികൾക്ക് അവർ അങ്ങനെയുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇതിപ്പം എന്താ കൊണ്ടുവരാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വെള്ളം കുടിക്കാനുള്ള സംവിധാനം സ്കൂളിൽ ഓൾറെഡി ഉണ്ട് പിന്നെ ഭക്ഷണത്തിൻ്റെ കേസിലാണെങ്കിൽ നേരത്തെയെന്നു പറഞ്ഞാൽ കഞ്ഞിയും പയറുമൊക്കെ ആയിരുന്നല്ലോ സ്കൂളുകളിലെ ഭക്ഷണം എന്നു പറഞ്ഞാൽ കഞ്ഞിയും പയറും ആയിരുന്നല്ലോ പക്ഷേ ഇപ്പം ഇപ്പോഴത്തെ ഒരു ഇതിലെന്നു പറഞ്ഞാൽ ചോറും ഒരു തോരൻ കറിയും അതുപോലെതന്നെ ഒരു ചാറുകറിയും ഉണ്ടാവും പിന്നെ ആഴ്ച്ചയിലൊന്ന് ഇറച്ചിയും ചിക്കൻ ചിക്കനും മുട്ടയും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് ആഴ്ച്ചയിൽ രണ്ടു ദിവസം പാൽ കൊടുക്കാറുണ്ട് ആ രീതിയിലൊക്കെ പിള്ളേരുടെ ഭക്ഷണരീതി പിള്ളേർക്ക് എല്ലാ രീതിയിലുള്ള പോഷണവും കിട്ടണം എന്നുള്ള ഒരു രീതിയിൽ ആ ഒരു ലക്ഷ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവർ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് സ്കൂളിൽ നിന്നുള്ള എല്ലാ രീതിയിലുള്ള നല്ല രീതിയിലുള്ള മെച്ചപ്പെട്ട സൗകര്യങ്ങളും കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് ആ രീതിയിലൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് സ്കൂൾ ഗ്രാമത്തിലെ സ്കൂളുകളെ പറ്റിയിട്ട് പിന്നെ പുസ്തകങ്ങളും എല്ലാ കുട്ടികൾക്കും സൗജന്യമായിട്ട് പുസ്തകം സ്റ്റേറ്റ് സിലബസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യമായിട്ട് പുസ്തകം സർക്കാർ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള സൗകര്യമാണ് ഇന്നത്തെ സ്കൂളുകളിലൊക്കെ കിട്ടുന്നത് ഇപ്പോൾ സി ബി എസ് സി സ്റ്റേറ്റ് സ്റ്റേറ്റ് സിലബസ്സായിട്ടുള്ള എല്ലാ സ്കൂളുകളിലും മിക്ക സ്കൂളുകളിലും വളരെ നല്ല രീതിയിലുള്ള സംവിധാനങ്ങൾ സൗകര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കുട്ടികൾക്ക് കുട്ടികൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും മെച്ചപ്പെടാനുള്ള എല്ലാവിധ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഇന്നത്തെ സ്കൂളുകളിൽ നിന്ന് കിട്ടുന്നുണ്ട് അത് നമ്മൾ നമുക്കത് ബോധ്യപ്പെട്ടിട്ടുള്ളതും ആണ് അതു നല്ല നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട് ഭക്ഷണം ആണെങ്കിലും എല്ലാം കുടിവെള്ളം ആണെങ്കിലും എല്ലാം വളരെ നല്ല നല്ല രീതിയിലുള്ള അഭിപ്രായമാണ് പ്രത്യേകിച്ച് പഴയകാലത്തെ താരതമ്യം ചെയ്തു നോക്കുമ്പം വളരെ നല്ല സൗകര്യമാണ് ഇന്ന് കുട്ടികൾക്ക് ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടുന്നത് പിള്ളേരുടെ ക്രിയാത്മകമായിട്ടുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കാനും എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇന്നത്തെ സ്കൂളുകളിൽ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾക്ക് ഉറപ്പാക്കുന്നുണ്ട് ഹെഡ് മാസ്റ്റേഴ്സും ടീച്ചേഴ്സും ഗവൺമെൻ്റും എല്ലാം പല രീതിയിലുള്ള സ്വന്തം മക്കളുടെ കാര്യമാണെങ്കിലും അത് വളരെ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡാണ്